എൻ്റെ മകള് എത്രത്തോളം വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന് ചോദിച്ചാല് നമുക്ക് ഞനെപ്പോഴും പറയും ഒരു പോസ്റ്റ് ഗ്രാജുയേഷൻ വരെ ചെയ്യണമെന്ന് പറയും കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമില്ലാത്തതായിട്ട് ആരുമില്ല അപ്പോള് ഡിഗ്രി എന്നുപറഞ്ഞാല് എല്ലാവരും ഡിഗ്രിക്കാരാണ് പി ജിയും ഓൾമോസ്റ്റ് എല്ലാവരും പി ജി എടുക്കുന്നവരാണ് അപ്പോള് ഞാനെപ്പോഴും പറയും ഒരു പോസ്റ്റ് ഗ്രാജുയേഷൻ പോസ്റ്റ് ഗ്രാജുയേഷൻ വരെ ചെയ്യണം ചെയ്തിട്ട് നിങ്ങളൊരു ജോലി കണ്ടെത്തണം ജോലി കണ്ടെത്തി നിങ്ങള് നിങ്ങടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ പറയാറുണ്ട് അത് എൻറ്റൊരു ആഗ്രഹമാണ് കാരണം ഞാനൊരു പോസ്റ്റ് ഗ്രാജുയേറ്റാണ് അതുകൊണ്ട്തന്നെ എൻ്റെ മക്കള് പോസ്റ്റ് ഗ്രാജുയേഷൻ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തില് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ അവർക്കൊരു ജോലിയും കൂടി വേണമെന്നാണ് എൻ്റെയൊരു അഭിപ്രായം കാരണം നമ്മളെപ്പോഴും സ്റ്റേബിളായിരിക്കണം അതായത് നമുക്കെപ്പോഴും ഒരു സ്ഥിരതയുണ്ടായിരിക്കണം ഒരു സ്ഥിര വരുമാനം ഏത് പെൺകുട്ടിയാണേലും വേണം അതായത് അവൾക്ക് അവളുടേതായിട്ടുള്ള ആഗ്രഹങ്ങള് കാണും അവളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെന്നുവെച്ചാൽ അവൾക്ക് ചിലപ്പോള് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും വസ്ത്രം മേടിക്കണമെന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവൾക്ക് അവളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ആർക്കാണെങ്കിലും ഇപ്പോള് അവളുടെ ഹസ്ബെൻറ്റിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവളുടെ മക്കൾക്കാണെങ്കിൽ പോലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം അതിനവള് ആരുടെയും മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ അവൾക്കൊരിക്കലും ഉണ്ടാകരുത് പിന്നെ എവിടെ പോയാലും നമ്മള് നമുക്കൊന്നും അറിയില്ല നമ്മൾ ആരാലും പിന്തള്ളപ്പെടരുത് എന്നുവെച്ചാല് അതായത് എല്ലാം നമ്മള് അറിഞ്ഞിരിക്കണമെന്നല്ല നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം എങ്കിൽ പോലും നമുക്കൊരു ഫോം ഫില് ചെയ്യാനോ ഇപ്പോള് ഒരു കടയിൽ പോയി നമക്കൊരു സാധനം നോക്കി എടുത്ത് അതിനെന്തെങ്കിലും പോരായ്കയുണ്ടെങ്കിൽ അതവരോട് പറഞ്ഞ് നല്ലത് നോക്കി മേടിക്കാൻ പറ്റണം ബാങ്കിൽ പോയാൽ അതെല്ലാം ഫില് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയില്ല ബോധമില്ലാന്ന് പറഞ്ഞ് നമ്മളൊരിക്കലും പെൺകുട്ടികളെ പിന്നോട്ട് മാറ്റി നിർത്തേണ്ടവരല്ല പെൺകുട്ടികളെന്ന് പറയുന്നത് പിന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലെ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടത്തുള്ളു അപ്പോള് നല്ല വിദ്യാഭ്യാസം നമ്മള് കൊടുത്താലേ അവര് നാളെ സ്ഥിരതയുള്ളവരായി അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നവര് ആകത്തുള്ളൂ അതുതന്നെ നമുക്ക് ഒരഭിമാനമാണ് എൻ്റെ മകള് ഇന്ന ഇതുവരെ പഠിച്ചു അല്ലെങ്കിൽ എൻ്റെ മകൻ ഇന്നതുവരെ പഠിച്ചു അവൻ ഇന്ന ഇതിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു അഭിമാനമാണ് ഇനി നമുക്കൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ കാര്യത്തിന് ഒരു കുറവും വരാതെ അതിലൂടെ അവർക്ക് നിൽക്കാൻ പറ്റും കാരണം സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ അവര് അവരിൽ സ്ഥിരത കാണാൻ തുടങ്ങും നമ്മളെ ആശ്രയിക്കത്തുമില്ല പ്രായമാകുന്തോറും ഓരോ അച്ഛനും അമ്മയ്ക്കുമുള്ള ടെൻഷൻ അതാണ് മക്കൾക്ക് ജോലിയായില്ലെങ്കിൽ അത് കുറച്ചുംകൂടി കൂടും എന്നാലവര് ആ അവർക്ക് കുഴപ്പമില്ലല്ലോ നമ്മളായിട്ടൊന്നും ചെയ്യണ്ടല്ലോ എന്നൊരു തോന്നല് എല്ലാ അച്ഛനും അമ്മമാർക്കും ഉണ്ടാകും അതുകൊണ്ട് എല്ലാവർക്കും പെൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും വിദ്യാഭ്യാസമുണ്ടാകണം വിദ്യാഭ്യാസം മാത്രമല്ല സമൂഹത്തിലെ എല്ലാ മാറ്റങ്ങളും അറിഞ്ഞിരിക്കണം സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപഴകാനുള്ള രീതികളും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകാനുള്ളൊരു മനസ്സുമൊക്കെ എല്ലാ കുട്ടികൾക്കും അത് പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അവർക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടുതന്നെ ഞാനെല്ലാവരോടും പറയും അതായത് ഇപ്പോള് പഠിക്കാൻ കഴിവുള്ള വ്യക്തികളാണെങ്കില് ഇപ്പോള് ഞാനോ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോള് ഞാൻ പറയും പ്ലസ് റ്റു കഴിഞ്ഞഞാ ചിലർക്കൊക്കെ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും ചിലരോട് ഞാൻ ചോദിക്കും നിനക്ക് എന്തിനാണ് ഇൻട്രസ്റ്റുള്ളത് ഇപ്പോള് എലക്ട്രീഷ്യൻ ആകാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കാകാനാണോ അപ്പോള് നിനക്ക് താല്പര്യം അതാണെങ്കിൽ നീ അങ്ങനെയുള്ള കോഴ്സുകള് ചെയ്യുക അതും വാലിഡായിട്ടുള്ള കോഴ്സ് ചെയ്തിട്ട് നീ എംപ്ലോയിമെൻറ്റിൽ രെജിസ്റ്റര് ചെയ്താൽ നിനക്കങ്ങനെയും ഒരു ജോലി കിട്ടും അല്ലാതെ വീടുകളിലാണേലും പോയി ചെയ്യാന് പറ്റും അല്ലാതെ അത്യാവശ്യം പഠിക്കാൻ പറ്റുന്നവരാണെങ്കില് ഞാനവരോട് പറയും ഹയർ സ്റ്റഡീസിന് പോകണം അതാണായണെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പോകണമെന്ന് തന്നെ പറയും നമുക്കിപ്പോള് ചിലപ്പോൾ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വിലയൊന്നും നമുക്കറിയത്തില്ല പക്ഷെ കുറച്ചങ്ങോട്ടാകുമ്പോഴേക്കും പിന്നെ നമുക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോള് അത് പഠിക്കാനും പറ്റത്തില്ല അപ്പോള് നമ്മള് ഉള്ള സമയത്ത് നമ്മളെക്കൊണ്ട് നേടിക്കൊടുക്കാൻ പറ്റുന്നതെന്താണോ അത് നേടിക്കൊടുത്താൽ പിന്നീട് അവർക്കങ്ങോട്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരത്തില്ലെന്നാണ് എൻ്റെയൊരു വിശ്വാസം